ഇന്നത്തെ സാങ്കേതിക വിദ്യ നമ്മളെ വളരെയധികം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റോം കൂട്തലുണ്ടായ മാറ്റങ്ങളെന്ന് പറയാണെങ്കിൽ അത് പറയാൻ തന്നെയേറെയുണ്ട് അതിലൊന്നാണ് ഇൻ്റെർനെറ്റ് ഞാൻ ജനിക്കുന്നത് ഒരു കൊല്ലം മുമ്പാണ് ഇൻ്റനെറ്റ് നമ്മുടെ ഇന്ത്യയിൽ ധാരാളമായി പ്രവർത്തനത്തിലാവുന്നത് അതായത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അന്ന് മുതൽ നമ്മുടെ നാട്ടിൽ വളർച്ചകൾ സാങ്കേതികമായ വളർച്ചകൾ ധാരാളമുണ്ട് ആദ്യമൊക്കെ നമ്മൾ വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് ലാൻഡ് ഫോണായിരുന്നു കണക്ട ചെയ്യാനായിട്ട് മറ്റ് നമ്മളും തൊട്ടടുത്തുള്ളവരെ കാണാൻ വേണ്ടിയും വിളിക്കാൻ വേണ്ടി അവർ സംസാരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത് ലാൻ ലാൻ ലാൻ ഫോണുകളായിരുന്നു എന്നാൽ അത് പതിയെ കീപ്പാടുള്ള ചെറിയ ഫോണുകളായി മാറുകയും പിന്നീട് കീപ്പാടും ടച്ചും വെച്ചുപയോഗിച്ചോണ്ടിരുന്ന കുറച്ചൂടി വലിപ്പമേറിയ ഫോണിലായി ഫോണായി മാറുകയും ഇന്നിത് സ്മാർട്ട് ആൻഡ് ടച്ച് ഫോണായി മാറീരിക്കുന്നു

അത് വലിയൊരു മാറ്റമാണ് ഞാൻ പണ്ട് സ്വന്തമായി ടൈപ്പ് ചെയ്ത് ഡയൽ ചെയ്ത് ഉപയോഗിച്ചോണ്ടിരുന്ന ലാൻ ഫോൺ ഇന്നൊരു വീട്ടിലും കാണാനില്ല ഇപ്പോൾ അതെൻ്റെ കൈയിലുള്ള ചെറിയൊരു ഉപകരണം മാത്രമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ യൂസ് ചെയ്ത് പണ്ടൊക്കെ പഠിച്ചിരുന്ന വളരെ ചുരുക്കം വീടുകളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് അതൊന്നും നമുക്കിന്ന് കാണാനേയില്ല കാരണം ഫോണിൻ്റെ ഉപയോഗം ഇന്ന് കമ്പ്യൂട്ടറിൽ വളരെ ചുരുക്കീരിക്കുന്നു കമ്പ്യൂട്ടറുകൾ മാറി ഫോണാകും ഫോൺ മാറി ടാബാകുന്നു മാറീരിക്കുകയാണ് അതൊക്കെ ആൾക്കാരിലെ ഉപയോഗത്തിനായി ചുരുങ്ങിയിരിക്കുന്നു അതുകൂടാതെ അത് ഞാൻ പണ്ടെല്ലാം വസ്ത്രങ്ങളെല്ലാം കഴുകീരുന്നത് എൻ്റെ വീടിലുള്ള അലക്കുകല്ലിൽ വെച്ചായിരുന്നു എന്നാലിന്ന് ഞാൻ വസ്ത്രങ്ങൾ കഴുകുന്നത് മോഡേൺ വാഷിങ് മിഷിനിലാണ് വാഷിങ് മിഷീനിത്തന്നെ ധാരാളം മാറ്റങ്ങളുണ്ട് ആദ്യമൊക്കെ സെമീ വാഷിങ് മിഷിനാരുന്നു പാതി നമ്മളും പാതി മെഷിനാ ചെയ്തോണ്ടിരുന്നത് എന്നാലിന്ന് എല്ലാം ഓട്ടോമാറ്റിക് വാഷിങ് മിഷ്യൻ തന്നെയാണ് ചെയ്യുന്നത് തുണി കൊണ്ടിടുകയും അത് തിരിച്ച് കൊണ്ട് വെയിലത്തിടുകയും മാത്രം ചെയ്താൽ മതി ചില വാഷിങ് മെഷ്യനിൽ വെയിലത്തു തുണികൾ വാഷിങ് മെഷിനിൽ നിന്നും തുണികൾ വെയിലത്തിടണ്ട ആവശ്യം കൂടിയില്ല നമുക്കതെടുക്കാം കുടയാം മടക്കി വെയ്ക്കാം അത്രയെ ആവശ്യമുള്ളു ഇതക്കെയാണെൻ്റെ ജീവിത്തിൽ വന്ന കുറെ മാറ്റങ്ങൾ പിന്നേയൊന്ന് പറയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഫ്രഡ്ജാണ് പണ്ടക്കെ നമ്മൾ ഭക്ഷണം ബാക്കി വന്നാൽ അത് പിറ്റേ ദിവസത്തെ എടുത്ത് വെയ്ക്കാറില്ല അന്നന്നെ കാണിക്കിലുള്ളത് കഴിച്ചിട്ട് കിടന്നുറങ്ങെയാണ് പതിവ് എന്നാലിന്ന് ഫ്രിഡ്ജ് വന്ന കാരണം ഒരു ദിവസം കഴിച്ച ഭക്ഷണം വേണ്ടെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നു അതിന് വളരെയൊരു മാറ്റം വന്നെനിക്ക് തോന്നുന്നു പിന്നീട് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയാണ് ഞാൻ ചെറുപ്പകാലത്ത് യൂസ് ചെയ്തൊക്കെ ഉപയോഗിച്ചിരുന്നയൊക്കെ ഫാനാരുന്നു സീലിങ് ഫാൻ പെഡൽ ഫാനക്കെയായിരുന്നു എന്നാൽ ഇന്നുപയോഗിക്കുന്നത് ഏ സിയാണ് നമ്മുടെ ചൂട് കാരണം ഇന്നത്തെ സീലിങ്ങ് ഫാനെല്ലാം വളരെ ഉപയോഗം കുറവായിരിക്കുന്നു ഏ സിയാണെങ്കിൽ ഇട്ടാൽ നിമിഷ നേരങ്ങൾക്കകം റൂം മുഴുവൻ തണുക്കും ആ തണുപ്പ് കാരണം തന്നെ എല്ലാവരും ഫാൻ മാറ്റി വെച്ച് ഏ സിലേക്ക് മാറുന്നു ഇതക്കെയാണ് ഞാൻ മുമ്പ് ഉപയോഗം സ്വന്തമായി ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞപ്പോൾ മാറീരിക്കുന്നത്